സുഹൃത്തുകളുടെകൂടെയും അതുപോലെ തന്നെ മറ്റു റൈഡർമാരുടെകൂടെയും ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഓരോ യാത്രയും നമുക്ക് നൽകുന്നത് ഓരോ വ്യത്യസ്ത അനുഭവങ്ങളാണ് നൽകുന്നത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലുള്ള ബൈക്ക് റൈഡ് ഒരു പ്രത്യേക ഫീല് തന്നെയാണ് നമുക്ക് തരുന്നത് പകലിനെ അപേക്ഷിച്ച് പകൽ സമയത്ത് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വേനൽക്കാലമായതുകൊണ്ട് തന്നെ നമുക്ക് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യത കൂടുതലാണ് ചൂട് നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അതാകുന്നതും പെട്ടെന്ന് നമുക്ക് തളർച്ച ബാധിക്കുന്നതും നമ്മുടെ ശരീരത്തിലുള്ള ജലത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനൊക്കെ കാരണമാവുന്നു പൊതുവേ വേനൽക്കാലത്ത് നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുദൂരം പോകാനൊന്നും നമുക്ക്

പൊതുവെ ചൂടില്ലാത്ത കാലാവസ്ഥകളിൽ ആണ് നമുക്ക് യാത്ര ചെയ്യുന്നത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് അതുപോലെത്തന്നെ മഴയിൽ ബൈക്കിൽ യാത്ര ചെയ്യുക മഞ്ഞുള്ള സമയത്ത് യാത്ര ചെയ്യുക മലകളിലേക്ക് ഉള്ള വഴികളിലൂടെ യാത്ര ചെയ്യുക എന്നിവയൊക്കെ വളരെയേറെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളാണ് കൂടെയുള്ളതെങ്കിൽ അത് ആ യാത്ര നമ്മളെ കൂടുതൽക്കൂടുതൽ അനുഭവങ്ങളിലേക്ക് എത്തിക്കും ബൈക്കിൽ യാത്ര ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം ഇഷ്ടപ്പെടുകയോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കുന്നതാണ് എന്നാൽ മറ്റു വാഹനങ്ങളിലാകുമ്പോൾ നമുക്ക് നിർത്താമെങ്കിലും ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്കത് സാധ്യമല്ല കാറിൽ പോകുമ്പോൾ നമുക്കത് സാധ്യമാണ് എങ്കിലും ബൈക്കിൽ പോകുമ്പോഴുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വച്ചുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇടുങ്ങിയ വഴിയിലൂടെ പെട്ടെന്ന് തിരിച്ച് നമുക്ക് എന്തു ചെയ്യാൻ പോകാനായിട്ട് സാധിക്കും എന്നാൽ കാറിലോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സാധിക്കില്ല ഷെഡ്യൂള് ചെയ്തിട്ട് നമുക്ക് പോകൽ മാക്സിമം സാധിക്കാറില്ല അപ്പോൾ ഞായറാഴ്ച്ചകൾ ഒഴിവുള്ള ഞായറാഴ്ച്ചകളിലാണ് നമ്മളതിനായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത് ആ ദിവസങ്ങളിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പോവുകയാണ് ചെയ്യാറുള്ളത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് പോവുന്ന ട്രിപ്പുകളൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കുന്നു ഇന്നുതന്നെ പുറപ്പെടുന്നു അല്ലെങ്കിൽ ഇന്ന് തീരുമാനിക്കുന്നു അടുത്താഴ്ച്ച പുറപ്പെടുന്നു ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മൾ യാത്രകൾ കൂടുതൽ ചെയ്യാവുന്നത് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാറ്റ് നമ്മുടെ മുഖത്തേക്ക് നേരിട്ടടിക്കുന്നതും മഴത്തുള്ളികൾ നമ്മളുടെ മുഖത്തേക്ക് വരുന്നതൊക്കെ ഒരു പ്രത്യേക ഫീല് തരുന്നതാണ് അതോടൊപ്പംതന്നെ നമുക്ക് ഇടയിലൊക്കെ എന്തെങ്കിലും ഇവിടങ്ങളിൽ നിർത്തിയിട്ട് ചായ കുടിക്കുക അല്ലെങ്കിൽ ആരെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബൈക്കിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നതും ബൈക്കിലുള്ള യാത്ര തന്നെയാണ് വളരെ നല്ലൊരു ഫീല് തരുന്നതാണത് നമുക്കത് വാക്കുകളിലൂടെ എക്സ്പ്രസ്സ് ചെയ്യാവുന്നതിന് അപ്പുറത്തേക്കുള്ളൊരു ഫീലാണ് നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് അതും നൈറ്റ് റൈഡാണെങ്കിൽ സൂപ്പറായിരിക്കും